എൻ്റെ വീട്ടിലെ അടുക്കളയിലുപയോഗിക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങളെന്നു പറയുമ്പോഴത്തേനും മിക്സിയുണ്ട് ഗ്രൈൻഡറുണ്ട് ചപ്പാത്തി മേക്കറുണ്ട് കോഫി മേക്കറുണ്ട് കെറ്റിലുണ്ട് അവനുണ്ട് പിന്നെ ഫ്രിഡ്ജ്ജുണ്ട് ഇതുപോലെ കുറെ ഉപ ഇലക്ട്രിക് ഉപകരണങ്ങളാണ് എൻ്റെ വീട്ടിലെ കിച്ചണിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി പഴയകാലത്ത് ഇതൊന്നും ഉണ്ടാ ഇല്ലായിരുന്ന സമയത്ത് നമ്മൾ ആട്ടുകല്ലും അരക്കല്ലും അതുപോലെ ഫ്രിഡ്ജിനു പകരം അലമാരയ്ക്കകത്ത് ഫുഡ് രാത്രികളിൽ ഫുഡ് അലമാരയ്ക്കകത്ത് വെക്കുമെന്ന് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിൻ്റെ വ്യത്യാസം പറയുകയാണെങ്കിൽ എൻ്റെ ഒരനുഭവം വെച്ചിട്ട് പണ്ട് ആ അരക്കല്ല് അമ്മ ഉണ്ടാക്കിത്തരുന്ന ചമ്മന്തി അല്ലെങ്കിൽ കറികളെന്നു പറയുന്നത് ഇപ്പോൾ നമ്മളീ മിക്സിയിൽ ഇതിലൊക്കെ ഉണ്ടാക്കുന്ന കറിയിനേക്കാളും നല്ല രുചിയുള്ള കറികളായിരുന്നു ആ സമയത്ത് രുചി ഇപ്പോഴും ഇല്ലയെന്നല്ലാ പക്ഷേ അതൊരു പ്രത്യേക രുചിയാണ് നമ്മളാ അരകല്ലിലൊക്കെ ഉണ്ടാക്കുന്നതിന് എന്നു പറയുമ്പോഴത്തേനും പിന്നെ അതുപോലെ തന്നെ വേറൊരു വ്യത്യാസമെന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഇ ഇപ്പോഴത്തെ കാലത്ത് വൈദ്യുതി വൈദ്യുതി ഭയങ്കരമായിട്ട് നമുക്ക് ഇതിന് ഉപയോഗം നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അതു കാരണം വൈദ്യുതി ബിൽ ഇലക്ട്രിസിറ്റി ബിൽ വളരെ വർദ്ധിച്ചിരിക്കുകയാണ് ഈ സമയ ഈ കാലങ്ങളിൽ എലക്ട്രിക് ഉപകരണങ്ങൾ ഒത്തിരി ഉപയോഗിക്കുന്നത് കൊണ്ടു തന്നെ എന്നാൽ പഴയകാലത്ത് നമ്മളിതൊന്നും ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ വൈദ്യുതി സേവ് ചെയ്യുകയാ ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് ഇത്രയും ഒരു വൈദ്യുതിക്ക് വൈദ്യുതി നഷ്ടം ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല പിന്നെയെന്നു പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഒത്തിരി സമയം എടുത്തായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ ഇപ്പോഴെന്നു പറയുമ്പോൾ അവനുള്ളതുകൊൻടു തന്നെ നേരത്തെ ഉണ്ടാക്കിയ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം നമുക്കവനിൽ വെച്ച് ചൂടാക്കി കഴിച്ചാൽ മതി പണ്ട് അങ്ങനെയല്ല ഇപ്പം ഫ്രിഡ്ജില്ലാതിരുന്ന സമയങ്ങളിൽ നമ്മൾ അങ്ങനെ അധികം ഫുഡ് വേസ്റ്റ് ചെയ്യാണ്ട് അന്നന്നുള്ളത് അന്നന്നു തന്നെ കഴിച്ചു തീർക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇതുപോലെ അവനിൽ വെച്ച് ചൂടാക്കി ഒന്നും ചെയ്യാണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഓരോ ദിവസത്തെ കറി പുതിയതായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്തു തന്നെ നമ്മുടെ അമ്മമാർ അതുപോലെ കൂട്ടുകുടുംബായിരുന്നല്ലോ പണ്ടൊക്കെ അപ്പോൾ അമ്മമാർ അമ്മായിമാർ അമ്മൂമ്മ എല്ലാവരും കൂടി ചേർന്ന് എല്ലാവരും കൂടി നിന്നാണ് അടുക്കളയിൽ ഇതെല്ലാം ഉണ്ടാക്കി തീർക്കുന്നത് കാരണം ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് മിക്സിയിൽ അടിച്ചെടുക്കാനും പെട്ടെന്ന് ഗ്രൈൻഡറിൽ അരച്ച് നമുക്കിങ്ങെടുക്കാനൊക്കെ പറ്റും നമ്മളൊരു വലിയൊരു നമുക്കൊരു വലിയ സ്ഥാനം അവിടെയില്ല എല്ലാം എലക്ട്രിക്കലിൽ ചെയ്യുന്നെന്നേ ഉള്ളൂ പക്ഷേ പണ്ട് പണ്ടെന്നു പറയുമ്പോൾ മാൻ പവർ അതായത് നമ്മൾ തന്നെ ഒരു നമ്മൾ തന്നെ ഇരുന്ന് എല്ലാം ചെയ്തെടുക്കണം അങ്ങനെയൊരു സമയത്ത് ഒത്തിരി സമയം നമ്മൾക്ക് നഷ്ടമാകുന്നുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേർ അതായത് അമ്മ അമ്മൂമ്മ അമ്മായി എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ചുനിന്നാണ് ഇതെല്ലാം ചെയ്തത് അതൊരു രസം തന്നെയായിരുന്നു അപ്പം അവരുടെ ഇടയിൽ കൂടി ഓടി നടക്കുന്നതും ഈ തേങ്ങ അതൊക്കെ എടുത്തു കഴിക്കുക എല്ലാവരും കൂടി ഇരുന്ന് കഥ പറയുക ഇതൊക്കെ കേൾക്കാനൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു അതൊക്കെ പിന്നെ സ്റ്റൗ അതിൻ്റെ കാര്യം പറയണമെങ്കിൽ ഈ ഫ്രിഡ്ജ് വന്നതുകൊണ്ട് തന്നെ നമുക്കൊത്തിരി നല്ലതും ഉണ്ടായിട്ടുണ്ട് കാരണം ഇപ്പോൾ വീടുകളിൽ അമ്മ അച്ഛനും ഇല്ല കുട്ടികളും മാത്രമായിട്ട് നിൽക്കുന്ന വീടുകളാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ നമുക്ക് പെട്ടെന്ന് ഫുഡ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അവനിൽ വെച്ചു ചൂടാക്കി കഴിച്ചിട്ട് പോകാം അങ്ങനെയൊരു അഡ്വാൻറ്റേജും നമുക്കിപ്പോൾ ഈ ഫ്രിഡ്ജും അവനും ഒക്കെ കൊണ്ട് നമുക്കുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ഒരനുഭവം